ഞാൻ മേടിച്ച ഒരു പ്രൊഡക്ടിൻ്റെ പോസിറ്റീവ് എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു ഗ്യാസ് സ്റ്റവിനെ കുറിച്ചാണ് എനിക്ക് ആദ്യം രണ്ട് ബർണ്ണറുള്ള ഒരു ഗ്യാസ് സ്റ്റവാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് രാവിലെ മകൻ പഠിക്കാൻ പോകുമ്പോഴും ചേട്ടൻ ജോലിയ്ക്ക് പോകുമ്പോഴും എനിക്ക് രാവിലെ ഒന്നും സമയത്തിനു കൊടുത്തു വിടാൻ പറ്റുമായിരുന്നില്ല അതുകൊണ്ട് ഞാൻ മൂന്ന് ബർണ്ണറുള്ള ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചു അത് ഒരു ബർണ്ണറിൽ ചോറും മറ്റേ ബർണ്ണറിൽ പലഹാരങ്ങളും പിന്നത്തെ മൂന്നാമത്തെ ബർണ്ണർ ഞാൻ കൂട്ടാനുള്ള സാധനങ്ങളും വച്ച് അങ്ങനെ എനിക്ക് സമയം ലാഭിക്കാൻ പറ്റി നേരത്തിന് അവർക്ക് കൊടുത്തു വിടാനുള്ള കൊടുത്തു വിടാനും പറ്റി അങ്ങനെ അതുവഴി എനിക്ക് സമയ ലാഭവും ഉണ്ടായി അതുകൊണ്ട് ആ പ്രോഡക്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി താങ്ക് യു